അത്ര വലിയ ഒരു പെയ്ൻ്ററോ അല്ലെങ്കിൽ അത്രയും വരയ്ക്കാനറിയാം എന്നുള്ള ആളൊന്നുമല്ല ഞാൻ എങ്കിൽപ്പോലും ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അതിനെ കുറിച്ച് അത് ആരായാലും ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡ്യ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമുണ്ടായിരിക്കണം എന്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഏത് രീതിയാണ് അഥവാ എനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ഗ്രാഹ്യമുണ്ടായിരിക്കണം അതിന് അത്പോലെത്തന്നെ ഏത് വരയ്ക്കാനറിയാത്ത ഒരാൾക്ക് ആണെങ്കിലും അൽപ്പം ഒക്കെ വരയ്ക്കാൻ സഹായിക്കുന്ന സാധിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ പ്രകൃതിയെ കുറിച്ച് ആണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കണ്ണ്കൾക്കൂടെ നമ്മൾ എപ്പോഴും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസിലേക്ക് ഏറ്റവും പതിഞ്ഞ് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പ്രകൃതി ദൃശ്യങ്ങൾ വരയ്ക്കുമ്പോഴ്ത്തേക്കിനും കുറച്ചുകൂടെ കാഴ്ച്ചയ്ക്കും അത്പോലെ നമ്മുടെ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ളതാണ് പ്രകൃതി ദൃശ്യങ്ങൾ അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രകൃതി ദൃശ്യങ്ങൾ വരയിൽ ഒരു ഒരു എന്താ അറയുന്നത് ഒരു തീം ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കാര്യമാണ് മഴ മഴയെ കുറിച്ച് പല രീതിയിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും ഏത് രീതിയിലുള്ള മഴയാണെങ്കിലും അതുപോലെത്തന്നെ തോടും പുഴയും അതുപോലെ മരങ്ങളും പച്ചപ്പും സൂര്യനെയും ബീച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് കാഴ്ച്ചയിൽ തന്നെ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ളവ പിന്നെ പിന്നെ ചെറിയ സസ്യങ്ങളേയും ചെറിയ മൃഗങ്ങളേയും പിന്നെ വരയാൻ ചെറിയ സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ പോലുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ നമുക്ക് എത്ര വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ആണെങ്കിൽപ്പോലും ഒന്ന് വരയിൽ സാധ്യമാക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം അവയൊക്കെ നമുക്ക് നമുക്ക് സൂക്ഷ്മമായി വീക്ഷിക്കാൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന നമ്മുടേതായ നമുക്ക് വരയ്ക്കാൻ സഹായിക്കുന്നതായ കാര്യങ്ങളാണ് അങ്ങനെ ഉള്ളവയൊക്കെ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഞാനൊരു വീട്ടമ്മയാണ് എങ്കിൽപ്പോലും കുഞ്ഞുങ്ങളെ സ്കൂളിൽ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരയ്ക്കാൻ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെയും ചെറിയ രീതിയിൽ ഞാൻ പ്രകൃതി ദൃശ്യങ്ങളെയാണ് സപ്പോട്ട് ചെയ്യുന്നത് കൂടുതലായി കാര്യം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ് വരയ്ക്കാനായിട്ട് മഴയും മഴത്തുള്ളിയും അല്ലെങ്കിൽ ചെടികൾ ഒരു താമരയോ ഒരു റോസാപ്പൂവോ അല്ലെങ്കിൽ ചെടികൾ ഓണത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നെല്ലും നെൽച്ചെടിയും പാടവും അതുപോലെ ഉള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കാഴ്ച്ചയിൽ പ്രചോദനം തരുന്ന കാര്യങ്ങളെ നമുക്ക് നമ്മുടെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളേ നമുക്ക് വരയിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതൻ